ഹലോ സർ എൻ്റെ പേര് രേഷ്മ എന്നാണ് ഞാൻ കുറേ കാലമായിട്ടു പാസ്പ്പോട്ടോഫീസിൽ വരുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പാസ്പ്പോട്ട് ഒന്നു ശരിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപേക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അപേക്ഷിച്ചു അപേക്ഷ പക്ഷെ അപേക്ഷ ഐ ഡിക്ക് അവിടുന്നതൊരു രസീത് തന്നിട്ടുണ്ടായിരുന്നു പാസ്പ്പോട്ട് ഓഫീസിൽ നിന്ന് അതു നഷ്ടപ്പെട്ടു പോയെൻ്റടുത്തു നിന്ന് അപ്പം ഇപ്പം അത് തിരിച്ചെടുക്കാൻ വേണ്ടി എന്തു ചെയ്യാൻ പറ്റും എന്നറിയാൻ വേണ്ടിയിട്ടു വിളിച്ചതാണ് എനിക്ക് ഒരു എൻ്റെ പഠനവും ജോലിയുമായിട്ടു ബന്ധപ്പെട്ട് എനിക്ക് വിദേശത്തേക്കു പോകാൻ വേണ്ടിയിട്ടായിരുന്നു പാസ്പ്പോട്ട് വേണ്ടിയിരുന്നത് അപ്പോൾ കുറച്ച് അത്യാവശ്യമായിരുന്നു എനിക്കൊരു അടുത്തൊരു ആറ് മാസത്തിനുള്ളിൽ പാസ്പ്പോട്ട് ശരിയാക്കി കിട്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകാനാണ് ഈ പാസ്പ്പോട്ടിന്റെ കാര്യം ശരിയായാൽ മാത്രമേയെനിക്ക് വിസയുടെ കാര്യങ്ങളുമായിട്ട് പ്രോഗ്രസ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളു അപ്പോൾ സാറിന് ഈ കാര്യത്തിൽ ഒന്നു സഹായിക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് എ ഈ രസീത് നഷ്ടപ്പെട്ടു പോയ കാര്യത്തിനു വേണ്ടിയിട്ട് ഇനിയെന്താണ് മുന്നോട്ടേക്ക് ചെയ്യാൻ പറ്റുകയെന്നുള്ളതറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് എന്താണെന്നു സാറിനൊന്ന് പറയാൻ പറ്റുമോ എത്രയും പെട്ടെന്നെനിക്കാ പാസ്പ്പോട്ട് കി ശരിയാക്കി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു എന്നാലെ എനിക്ക് കൂടുതലെൻ്റെ വിദേശത്തുള്ള പഠനവും ജോലിയും അവിടുത്തെ കോളേജിലെ അഡ്മിഷനൊക്കെയായിട്ട് മുന്നോട്ടു പോകാൻ പറ്റുകയുള്ളു